ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഗെയിം കളിക്കാറ് ഉള്ളത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ പബ്ജിയാണെങ്കിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മള് ബോറടിച്ച് പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കുറേ ആൾക്കാരതില് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കളിക്കാൻ പറ്റുള്ളു ഒന്നാമത്തതത് അതാണ് ഒരു കമ്മ്യൂണിറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യത്ത് നിന്നുമുള്ള ആൾക്കാര് പല നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽത്തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്കതിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഓരോരുത്തരെ വെടി വച്ച് കൊല്ലുക അങ്ങനത്തെ ഒരു സ്കീമാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ കളിക്കാം അതായത് നമ്മള് ടീമായിട്ട് നമക്കിപ്പോൾ നമ്മുടടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഗ്രൂപ്പായിട്ട് ചേർത്തിട്ട് അങ്ങനേയും വേണമെങ്കിൽ കളിക്കാം എങ്ങനെ വേണോ നമുക്കത് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കായിട്ട് കളിക്കുമ്പോൾ വലിയ ഒരു രസമില്ലാത്ത ഒരു ഗെയിം പോലെ തോന്നാം അപ്പോൾ നമ്മള് കൂടുതലായിട്ടും കമ്മ്യൂണിറ്റിയായിട്ടാണ് കളിക്കാറുള്ളത് അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും